ചേട്ടാ ഇത് കൊറോണ കൊണ്ട് എല്ലാവരും വലഞ്ഞിരിക്കുന്നൊരു സിറ്റുവേഷനാണെന്ന് ചേട്ടന് അറിയില്ലേ നമ്മളൊരു ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ ആണ് ഇത്രേം പാസഞ്ചേഴ്സിനെ വെച്ചിട്ട് നിങ്ങള് വണ്ടി ഓടിക്കുമ്പോ നിങ്ങള് മാസ്ക് ധരിക്കാണ്ട് മാസ്ക് ഇടാണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത് പാസ്സഞ്ചേഴ്സിനും കൂടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ കോവിഡ് ഉണ്ടോ അല്ലേ കൊറോണ ഉണ്ടോ എന്നുള്ളതല്ല ഇനീപ്പോ ഒരുപക്ഷെ നമ്മളിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടിയുള്ളൊരു പ്രശ്നമാകുന്നതല്ലേ ഇനിയിപ്പോൾ അതങ്ങനെയല്ലെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനില് നിങ്ങള് മാസ്ക് ധരിക്കാണ്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് പാസ്സഞ്ചേഴ്സിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളത് ചെയ്യാൻ പാടില്ല കാരണം ഒന്നോ രണ്ടോ പേരല്ല ഇത്രേം പാസ്സഞ്ചേഴ്സ് വണ്ടീലിരിക്കുമ്പോ നിങ്ങള് മാസ്ക് ധരിക്കാണ്ട് നിങ്ങളൊരാള് മാത്രം മാസ്ക് ധരിക്കാണ്ട് ഇരിക്കുന്നത് അതൊരു മോശമായ കാര്യല്ലേ സാറെ നിങ്ങളെന്തായാലും അപ്പോൾ മാസ്ക് ധരിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ മതി കാരണം അത്രേം പാസ്സഞ്ചേഴ്സ് ഞങ്ങക്കത് പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടാണ് നോക്ക് ഒന്നാമത് ഈ സീറ്റുകളൊക്കെ നോക്ക് നനഞ്ഞ് കുതിർന്ന് ഒരു ഇതായിട്ടാ ഇരിക്കുന്നത് ബസ്സിൻ്റെ ക്യാബും സീറ്റും ഒക്കെ എന്താ പറയാ വൃത്തിഹീനമായിട്ടാ ഇള്ളത് അതും നമ്മൾ ഏജൻസിനോട് നമ്മൾ എന്തായാലും കംപ്ലൈന്റ് ചെയ്യും നിങ്ങള് ഒന്നുകിൽ നിങ്ങളിതൊക്കെ നീറ്റ് ആയിട്ട് കൊണ്ടുനടക്കണം ഇങ്ങനെ ഒരു സിറ്റുവേഷനില് ബസ്സും അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളും ഈ സീറ്റും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടേം കൂടെ കടമ അല്ലേ ഇപ്പ നിങ്ങളെന്തായാലും ആ മാസ്ക് ധരിക്കണം മാസ്ക് ധരിക്കാണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല കാരണം ഇത്രേം പാസ്സഞ്ചേഴ്സ് ഈ വണ്ടീൽ ഇള്ളതാണ്